കളികൾ സാമൂഹ്യ ഐക്യം കൂട്ടും ഉദാഹരണത്തിന് ഒരു കളി നമ്മളിപ്പം നമ്മളെ സമൂഹത്ത് വച്ചു കഴിഞ്ഞാൽ നാനാതുറയിൽ നിന്നുള്ള ആൾക്കാർ പല ജാതി പല മതം ഈ മതോം ജാതി ഒന്നും നോക്കാതെ പല ജാതിലും മതം മതത്തിലും ഉള്ള ആളുകൾ അതിൽ പങ്കെടുക്കും അതിലവർ പങ്കെടുക്കേം അവർ അതിലൊരു ഭാഗമാകുകയും ചെയ്യും കളികൾ അല്ലേ സ്പോർട്സിൽ ഒരിക്കലും മതം കൂട്ടിക്കലർത്താൻ പാടില്ല ഞങ്ങൾ ഇവിടെ ആരും അങ്ങനെ കൂട്ടിക്കലർത്തത്തില്ല ഇപ്പം സമൂഹം എപ്പോഴും ആ ഒരു സ്പോർട്സിൽ ഒന്നായിരിക്കും ഇതിപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ നമ്മളിപ്പോൾ ക്രിക്കറ്റ് ഈ ഇന്ത്യൻ ഫാൻസ് ഒരു ജാതിയിൽ മാത്രം പെടുന്ന ആൾക്കാരല്ല ഈ ക്രിസ്ത്യൻസും ഹിന്ദുസും മുസ്ലീംസും സിക്കും ഗുൽജീസും എല്ലാവരും ഇ ഇന്ത്യൻ ഫാൻസാണ് ഓരോ ഇന്ത്യക്കാരൻ ഒരു ഇന്ത്യൻ ഫാൻസ് ആണ് നമ്മളൊരു സമൂഹം ഇന്ത്യ എന്നൊരു സമൂഹം മൊത്തത്തിൽ ഇന്ത്യ എന്നൊരു രാജ്യത്ത് താങ്ങി നിർത്തേം അവരെ ആ ടീമിന് വേണ്ടി നമ്മൾ ഒന്ന് ചേരുകേം ചെയ്യും അത് മാത്രം അല്ലാതെ ഇപ്പോൾ അർജൻറ്റിനേം എന്നൊരു ടീമിൽ ടീമിൽ ഒരിക്കലും അർജൻറ്റിനിയൻ ഫാൻസ് മാത്രമല്ല ഉള്ളത് ഇന്ത്യയിലുള്ള ആളുകളും എല്ലാവരും ഈ ആ ഒരു ആ ഒരു സ്പോർട്സിൽ ഇല്ലേ ആ ഒരു കളിയിൽ ഈ ഫുട്ബോൾ എന്നൊരു കളിയിൽ എല്ലാവരും ഒന്നാണ് ഒരിക്കലും നമ്മൾ ഈ ഒരു ക്രിക്കറ്റ് ഇന്ത്യക്കാർക്ക് മാത്രം സ്പോർട്സ് യൂറോപ്പിൽ ഉള്ളവർക്ക് മാത്രം എന്ന രീതിയിൽ ഒരു രീതിയിലും ഉള്ള ഒരു വേർതിരിവ് ഒന്നുമില്ല എല്ലാവരും ഒരേ രീതിലാണ് ഇതിനെ കാണുന്നതും ഇതിൽ ഉൾക്കൊള്ളുന്നതും എല്ലാം ഒരേ രീതിലാണ് ഒരു രീതിയിലും ഇതിൽ ഒരു സാമൂഹിക വിവേചനമോ മത വിവേചനമോ അല്ലേ നിറവിവേചനം അങ്ങനൊന്നുമില്ല റേസിസ്റ്റ്സെന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ഒരു രീതിലും ഒരാളേം ഇതിൽ നിന്ന് മാറ്റി നിർത്തിട്ടില്ല സ്പോർട്സ് എന്നത് എല്ലാവരും ഒന്നാവുന്നൊരു ഒരു ഒരു ഒരു മേഖലയാണ് എല്ലാ സ്പോർട്സിലും എല്ലാവർക്കും പങ്കെടുക്കാം അതിപ്പോൾ ആണെന്നോ പെണ്ണെന്നോ ഇല്ല ഏത് സ്പോർട്സിലും ഏത് ആൾക്കാർക്കും പങ്കെടുക്കാം സമൂഹം എന്നും ആ ഒരു ഇതൊന്നായിരിക്കും